ഹലോ ആ ഇത് റാപ്പിഡ് മോട്ടോഴ്സ് ഇപ്പോൾ ഇങ്ങനെ വണ്ടി കഴുകുന്ന സ്ഥലം അല്ലായിരുന്നോ സർവീസ് സ്റ്റേഷൻ ആ ഓക്കെ അപ്പം ഒരു നമുക്കൊരു കാറുണ്ടായിരുന്നു എപ്പോഴാ കൊണ്ടുവരാൻ പറ്റുക എങ്ങനെയാണ് അതിൻ്റെ അപ്പോയിൻമെൻറ്റ് എല്ലാം നേരത്തെ എടുത്ത് ടൈമ് വല്ലതും ഉണ്ടോ ആ കുറച്ച് പ്രീമിയം കാറാണ് ഞാനിപ്പം കാക്കനാടാണ് ഉള്ളത് അതിന് എക്സ്ട്രാ പേയ്മൻറ് ഉണ്ടോ എങ്ങനെയാ നമുക്ക് പെയ്മൻറ് ഒരു പ്രശ്നം അല്ല ഇവിടെ വന്ന് എടുക്കുവാണെങ്കിൽ അതായിരിക്കും നമുക്ക് കുറച്ച് കൂടെയും ഞാൻ ലൊക്കേഷൻ വേണമെങ്കിൽ അയച്ചിട്ടേക്കാം ആ അത് കുഴപ്പം ഇല്ല പേയ്മെൻറ് ഒരു പ്രശ്നം അല്ല അത് ഞാൻ ഇപ്പോൾ ലൊക്കേഷൻ ഇട്ടാക്കാം അതിൽ പിന്നെ പേയ്മെൻറ്റും ബാക്കി കാര്യങ്ങളും എങ്ങനെയാണെന്നൊന്ന് പറയുമോ ഫുൾ ബോഡി എത്രയാ വരുന്നത് ബോഡി ബോഡി മാത്രം പ്രീമിയം വണ്ടി ആണേ ആ ഓക്കെ അപ്പം മറ്റേ അടിയൊക്കെ കഴുകാനോ ഓ ഇത് രണ്ടുംകൂടെ ആണെങ്കിൽ ഏഴായിരം അപ്പം ഇൻറീരിയറൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ എത്ര വരും ഓ പതിനെണ്ണായിരം രൂപ വരുമോ അതിച്ചിരി കൂടുതലാണ് തോന്നുന്നല്ലോ നമ്മൾ ആ നമ്മുടെ ബി എം ഡബ്ള്യൂ ആയിരുന്നു ഐ ഫൈവ് അതെ നമ്മൾ സാറ് ആ ഓക്കെ അല്ല നമ്മൾ സർവീസ് സെൻററിൽ പോയപ്പം ഇത് പതിനഞ്ച് രൂപക്ക് അവർ തീർത്തതന്നായിരുന്നു ഇപ്പം പതിനേഴ് പതിനെട്ട് കേട്ടതുകൊണ്ട് ചോദിച്ചതാണ് പൈസ ഒരു പ്രശ്നം അല്ല എന്നാലും സെയിം ഡിഫറൻസ് വന്നതുകൊണ്ട് പെട്ടെന്ന് ചോദിച്ചതാണ് അറിയാൻ വേണ്ടിയിട്ട് ഓ അപ്പം സാധാ വണ്ടികൾക്കാണെങ്കിലോ അതിൻ്റെ റേറ്റ് എങ്ങനെയാ വരുന്നത് അതുകൂടെ ഒന്ന് പറഞ്ഞേക്കാമോ ഇനി ആ ഓക്കെ ഓക്കെ ഓക്കെ ആ അപ്പം നമ്മുടെ ലൊക്കേഷൻ കാക്കനാടാണ് അപ്പം അവിടം വരെ വന്ന് എടുക്കുന്നതിന് അതിന് അതിൻ്റെ ഫീസ് എങ്ങനെയാ അതിൻ്റെ ചാർജ് എത്ര വരും ആണോ അപ്പം നമ്മളെ അവിടുന്ന് ഒരു കാക്കനാട് തൊട്ട് നിങ്ങളെവിടെ എടപ്പള്ളി അല്ലേ സ്ഥലം പറഞ്ഞത് എടപ്പള്ളി ഒരു ഒരു പത്ത് കിലോമീറ്ററ് കാണും അപ്പോൾ എത്ര രൂപായ്ക്കുള്ളിൽ നിൽക്കുവായിരിക്കാൻ ചാൻസുണ്ട് ഇല്ല ഇല്ല നോ പ്രോബ്ലം നോ പ്രോബ്ലം അത് കുഴപ്പം ഇല്ല പെയ്മെൻറ് ഒരു പ്രശ്നം അല്ല ഞാൻ ചോദിച്ചതാ അറിയാൻ വേണ്ടി നമ്മൾ സർവീസിൻ്റെ ഒരു കാര്യങ്ങളെ സർവീസ് സെൻട്രിൽ ചെയുമ്പോഴും അല്ലാതെ ഒരു നമ്മൾ സർവീസ് സ്റ്റേഷൻ പോയി ചെയ്യുമ്പത്തേക്ക് അതിൻ്റെ ഡിഫറൻസ് അറിയാൻ ആ ഓക്കെ വലിയ ഡിഫറെൻസ് വരാറില്ലല്ലേ നിങ്ങൾ പിന്നെ മാനേജറ് ആയിരുന്നോ അത് ഓണർ ആരായിരുന്നു എങ്ങനെയാ നിങ്ങളുടെ റോള് അവിടെ ആ ഓക്കെ ഇതിൻ്റെ ഓണറ് ആരാ എവിടെ ഉള്ള ആളാ ആളുടെ പേരെന്തായിരുന്നു ആണല്ലേ ഞാൻ എന്നാൽ കേട്ടിട്ടുണ്ട് എനിക്ക് നിങ്ങളുടെ ഒരു പാർട്ണർഷിപ്പ് ആണോ നിങ്ങളുടെ ഇത് ആ ഓക്കെ ഓക്കെ ആ ആ എങ്കിൽ ഓക്കെ ഞാൻ ഇന്ന് എപ്പോളാ വണ്ടി എടുക്കാൻ പറ്റുക ഞാൻ ഇപ്പോൾ തൊട്ട് വണ്ടി ഇവിടെ കിടപ്പുണ്ട് ഞാൻ ലൊക്കേഷൻ അയച്ചിട്ടേക്കാം നിങ്ങൾക്ക് ടൈം ഉള്ളപോലെ വന്ന് എടുത്താൽ മതി ആ കീ ഞാൻ അവിടെ കൊടുത്തേക്കാം ഞാൻ സെക്യൂരിറ്റിയുടെ കയ്യിൽ കൊടുത്തേക്കാം എങ്കിൽ എങ്കിൽ ആ ഓക്കെ ഓക്കെ എങ്കിൽ ശരി ഞാൻ കീ ഇവിടെ സെക്യൂരിറ്റിയുടെയിൽ കൊടുത്തേക്കാം